ഒരു ക്രിസ്ത്യാനി എന്ന നിലക്ക് പെരുന്നാളുകളും ആഘോഷങ്ങളും എല്ലാം വരുന്നത് ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഇതാണ് പെരുന്നാൾ അങ്ങനെയുള്ള ഉത്സവങ്ങൾ എല്ലാം വരുമ്പോൾ വീട്ടിലെല്ലാവരും ഒന്നിച്ച് കൂടുകയും ആഘോഷങ്ങൾ നടത്തുകയും പടക്കം പൊട്ടിക്കുകയും ഒരുപാട് ഭക്ഷണം വൈവിധ്യമാർന്ന കുറേ ഭക്ഷണങ്ങളുണ്ടാക്കുകയും എല്ലാവരും ഒരുമിച്ച് കൂടി അത് കഴിക്കുകയും ചെയ്യുമ്പോൾ ഒരു പാട് സന്തോഷങ്ങൾ നൽകുന്ന നിമിഷങ്ങളാണ് അവ പ്രധാനമായും പെരുന്നാളുകൾ ജാനുവരി ആ സമയത്താണ് വരിക അപ്പോൾ ഞങ്ങൾ വീട് മുഴുവൻ ലൈറ്റും മാല ബൾബൊക്കെ വച്ച് അലങ്കരിക്കുകയും പിണ്ടി കുത്തുകയും പിണ്ടിയിൽ പൂക്കളും കൊടികളും എല്ലാം ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അമ്പിന് പോവുക എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ വന്ന് കൊട പിടിച്ച് അമ്പ് സെബാസ്ത്യാനോസ് പുണ്യാളൻ്റെ അമ്പ് എല്ലാ വീട്ടിലും കൊണ്ട് നടക്കുക എന്നത് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പിന്നെ ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം ക്രിസ്ത്യാനികളുടെ ഒരു മറ്റ് പ്രധാന ആഘോഷമാണ് ഈസ്റ്റർ ഈസ്റ്ററിന് മുൻപ് അൻപത് ദിവസം നോമ്പെടുത്ത് പിന്നെ അന്ന് ഈസ്റ്റർ രാത്രിയാകുമ്പോൾ ആ നോമ്പ് വീടുമ്പോൾ ഒരുപാട് താൽപ്പര്യമായിരിക്കും അന്ന് രാത്രി പള്ളിയിൽ പോയി പുലർച്ച പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് പള്ളിയിൽ പോവുക കുർബാന ഉണ്ടാവുക അപ്പം അവിടെ പോയി എല്ലാ കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുക എന്നത് വളരെ ഒരു താൽപ്പര്യമുള്ള സംഭവമാണ് അന്ന് രാത്രി അവിടെ നോമ്പ് വിടാൻ വേണ്ടി വട്ടഅപ്പവും ഇറച്ചിക്കറിയും അങ്ങനെ എല്ലാം ഒരുക്കിയിട്ടുണ്ടാവും അതെല്ലാവരോടും കൂടെ നിന്ന് കഴിക്കുക എന്ന് വളരെ രസമേറിയ ഒരു സംഭവമാണ് ക്രിസ്മസ് ആയാലും ഈശോയുടെ ജനനമാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ് അത് അന്ന് അത് ഈസ്റ്റർ പോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ക്രിസ്മസ്സിൻ്റെ അന്ന് രാത്രി പള്ളിയിൽ പോയി ഈശോൻ്റെ ജനനം ആഘോഷിക്കുക ആയിരുന്നു എല്ലാ കൊല്ലവും ഞങ്ങൾ ആഘോഷിക്കാറുള്ളതാണ് ക്രിസ്മസ് ഈസ്റ്റർ പെരുന്നാൾ അങ്ങനെയുള്ളത് എല്ലാം